ഹലോ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ട് കുറേ സമയായി ഒരു വൺ അവറായി ഞാൻ വെയ്റ്റ് ചെയ്യുന്നു എവിടെ എത്തിയിട്ടുണ്ടാവും ആ പകുതി വഴിക്കെത്തിയിട്ടുള്ളൂ അല്ല ഞാൻ കുറേ നേരമായി ഇരിക്കുന്നത് അപ്പം എന്താ പറ്റിയതെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രേക്ക്ഡൌൺ ആയതാണോ ഓഹ് എത്ര സമയം എടുക്കുമായിരിക്കും പതിനഞ്ച് മിനിറ്റോ ഞാൻ കുറേ നേരമായി വെയ്റ്റ് ചെയ്യുന്നു അപ്പം ഇപ്പോൾ വരും ലൈറ്റൊന്നും കാണിക്കുന്നുമില്ല ക്യാബിന് ആ ഓക്കെ ഞാൻ കുറേ നേരമായി ഇരിക്കുന്നു ആ ഇത് സ്ഥലം എവിടെയാണ് ഉള്ളത് കാട്ടിക്കൊളത്താണോ ആ പനവേലി എത്തണം അപ്പം കുറേ കിലോമീറ്റർ ഇല്ലേ അപ്പോൾ എപ്പോൾ വരും എന്നൊന്ന് പറയണം അല്ലെങ്കിൽ വേറെ ക്യാബ് എങ്കിലും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കെ പതിനഞ്ച് മിനിറ്റ് വേറെ ഡിലേ ഒന്നും ഇല്ലല്ലോ ആ ഇനി ലെയ്റ്റ് ആകുമോ അങ്ങനെ വല്ലതും ചെയ്യുമോ പെട്ടെന്ന് എത്തിയാൽ എനിക്ക് അർജന്റായിട്ട് പോകേണ്ടതാണ് അതുകൊണ്ടായിരുന്നു കുറേ നേരമായി വെയ്റ്റ് ചെയ്യുന്നു ആ ഓക്കെ പതിനഞ്ച് മിനിറ്റാണോ ആ ഓക്കെ ഞാൻ വെയ്റ്റ് ചെയ്യാം